നല്ലൊരു രാഷ്ട്രം പണിതെടുക്കാൻ ജനങ്ങൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഏറ്റവും അത്യാവശ്യമാണ് ആരോഗ്യമുള്ള ഒരു ജനതയെ പണിതെടുത്താൽ മാത്രമേ നല്ലൊരു ഒരു സമൂഹത്തെ നമുക്കും മുന്നോട്ടു കൊണ്ടു പോകാൻ പറ്റുകയുള്ളൂ അത് ആരോഗ്യത്തിന് വേണ്ടി പ്രധാനമന്ത്രി നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ടു കൊണ്ടു വന്നിട്ടുണ്ട് മാതൃവന്ദന യോജന വൃദ്ധർക്ക് മാതൃവന്ദന യോജന എന്നു പറയുന്നത് അയ്യായിരം രൂപ മുതൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് നൽകുക ഘട്ടം ഘട്ടമായി നൽകുകയും നൽകി അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വാർദ്ധക്യ പെൻഷൻ നൽകുന്നുണ്ട് അതൊരു കണക്ക് നോക്കിയാൽ നല്ല ഉപയോഗമാണ് കാരണം എന്നു പറഞ്ഞാൽ വയസ്സായി കിടക്കുന്ന ആൾക്കാരെ തിരിഞ്ഞു പോലും നോക്കാനില്ലാത്ത പാവപ്പെട്ട വയസ്സ വയസ്സായ അപ്പച്ചനെയും അമ്മച്ചിയൊക്കെ അമ്മച്ചിക്കൊക്കെ അദ്ദേഹം നൽകുന്ന പൈസ ഒരു വലിയ ഒരു തുക തന്നെയാണ് പിന്നെ ഒരു ഹെൽത്ത് സെൻറ്ററുകൾ വലിയ വലിയ ഹോ ഇപ്പം എല്ലാവരും വലിയ ഹോസ്പിറ്റലുകളിലാണ് ആശ്രയിക്കുന്നത് അതു വെച്ചു നോക്കുമ്പോഴത്തേക്കും നിവൃത്തിയില്ലാത്ത പാവങ്ങൾ ഹെൽത്ത് സെൻറ്ററിനെ ആശ്രയിക്കുന്നു കാരണം അവിടെ പൈസ കൊടുക്കാതെ ഗവൺമെൻറ്റ് അവർക്ക് ഇത് മെഡിസിൻസൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഹെ നമ്മുടെ ഇവിടെ പാങ്ങപ്പാറയിൽത്തന്നെ പണ്ട് ഉച്ചവരെയാണ് ഹെൽത്ത് സെൻറ്റർ നടന്നു കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ട്വൻറ്റി ഫോർ അവേഴ്സും അവിടെ ഓ പി പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വരുന്ന ജനങ്ങൾക്ക് കിടക്കാനുള്ള എമർജൻസിയുള്ള കേസുകൾ കിടത്തുന്നുണ്ട് പിന്നെ നോക്കുമ്പോഴത്തേക്കും ന്ത നൽ എന്താ പ്രധാന പ്രധാനമന്ത്രി നല്ല കാര്യങ്ങളാണ് ആരോഗ്യത്തിനു വേണ്ടി നല്ല മുൻകൈ എടുക്കുന്നുണ്ട്